കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ ചെറുപ്പം മുതലേ കുറച്ച് എക്സൈറ്റ്മെൻ്റ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കാണാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ഇത് ചിരട്ട അല്ലെങ്കിൽ ചകിരി കണ്ടാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ചിരട്ട ഉപയോഗിച്ച് പാവകളെയൊക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ അതിനെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട് കൂടാതെ വീട് വീട്ടിലായാലും അത്തരത്തിലുള്ള വേസ്റ്റ് പേപ്പറുകളോ ചിരട്ടകളോ കാണുന്ന സമയത്ത് അത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി റൂമുകളിലോ ഹാളിലോ അല്ലെങ്കിൽ എന്താണോ ഞാൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഭംഗിയും മനോഹാരിതയും നോക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങൾ കണ്ടെത്തി അവിടെ കൊളുത്തിയിടാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു ഇപ്പം ചകിരി കൊണ്ട് ചകിരി കൊണ്ട് നമ്മൾ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്താണ് പറയുക ചവിട്ടി പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ അത് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്നോ രണ്ടെണ്ണോക്കെ ഇങ്ങനെ എൻ്റെ ഒരു ഇഷ്ടത്തിന് അനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അത് അങ്ങനെ അതിൻ്റെ ഓരോ ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവാറുണ്ട് അത് എന്നിട്ട് വീടുകളിൽ ഉപയോഗിക്കും പിന്നെ അതുപോലെ വേസ്റ്റ് തുണികൾ ഉപയോഗിച്ച് ചവിട്ടി ഉണ്ടാക്കുമായിരുന്നു പിന്നെ വേസ്റ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അതുപോലെ വേണ്ടാത്ത കാർബോഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെട്ടി മുറിച്ച് നാലുകെട്ട് പോലുള്ള വീടുകളും മറ്റും ഉണ്ടാക്കിയിട്ട് കാണും പിന്നെ അതുപോലെ ബോട്ടിലുകൾ ബോട്ടിലുകളിലൊക്കെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ചിട്ട് ചിത്ര പണികളൊക്കെ ചെയ്ത് കാണാൻ മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകളും ഉണ്ടാക്കി സൂക്ഷിക്കുന്ന സൂക്ഷിക്കുമായിരുന്നു അതൊക്കെ വീടുകളെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കരകൗശല വസ്തുവാണ്